ഉപജീവനമാർഗം എന്ന് പറയണ പറഞ്ഞാൽ ഇപ്പോൾ ഡ്രൈവിംഗ് ഫീൽഡാണ് എൻ്റെ ഇപ്പോൾ കറണ്ട്ലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കണത് അതൊരു എന്താ ഇപ്പോൾ ഹെവി ഡ്രൈവിംഗ് അതായത് വല്ല്യ ലോറികൾ പിന്നെ വല്ല്യ ലോറികൾ ഒക്കെ ഡ്രൈവിങ്ങാണ് ഫീൽഡ് അപ്പോൾ അതിനു മെയിനായിട്ട് നമ്മൾ നോക്കണതെന്ന് പറയുമ്പോൾ വല്ല്യ വണ്ടികൾ തന്നെയാണ് ഞാൻ മെയിനായിട്ട് ഓടിക്കുന്നത് അതിൽ എന്തുകൊണ്ടാണ് ഇതെടുക്കാൻ ഡ്രൈവിംഗ് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ള ഒരു ജോലിയാണ് അതീ വല്ല്യ വണ്ടികളൊക്കെ ഓടിക്കാൻ ഭയങ്കര അത് കണ്ട് അത് നമ്മുടെ ടിവിയിലും അതായത് നേരിട്ട് കാണണത്രയും വല്ല്യ ഓടിക്കുമ്പോൾ അതൊരു എന്താ പറയുക മനസ്സിലൊരു ഒരു ആങ്സൈറ്റി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആഗ്രഹം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവണ സമയത്ത് കുറച്ചു കാലം ഡ്രൈവിങ്ങിൻ്റെ ഒരു ഇത് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യണ സമയത്ത് ലോറിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കമ്പനിയിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അവിടെ വർക്ക് ചെയ്യാനുള്ള സമയത്ത് ലോറിയെടുക്കാനും അത് ഓടിക്കാനുള്ള ഇതൊക്കെ കിട്ടി അപ്പോൾ പിന്നെയത് കഴിഞ്ഞിട്ട് ഞാൻ ലൈസൻസ് എടുത്തു പിന്നെ നമ്മുടെ അടുത്തുള്ള ഒരു ഏട്ടൻ തന്നെ ഉണ്ടായിരുന്നു ആളുടെയൊപ്പം ആളുടെ ലോറിയിൽ തന്നെയായിരുന്നു അപ്പോൾ ആളുടെ കൂടെ കൂടി അത്യാവശ്യം നല്ല രീതിക്കുള്ള ഓട്ടവും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അത് തന്നെ ഒരു ഉപജീവനമാർഗമായിട്ട് ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്